നമ്മുടെയീ എറണാകുളം ജില്ലയിൽ നാല് കാലാവസ്ഥയാണുള്ളത് മഞ്ഞ് കാലം വേനൽക്കാലം മഴക്കാലം കാറ്റ് കാലം മഞ്ഞ് കാലം വന്നത് ജനുവരി ടു മാർച്ചിലും പിന്നെ വേനൽക്കാലം മാർച്ച് ടു മെയ്യിലും പിന്നെ മഴക്കാലം ജൂൺ ടു ഓഗസ്റ്റ് കാറ്റ് പിന്നെ സെപ്റ്റംബർ ടു ഡിസംബറ് മഴക്കാലന്ന് പറയുമ്പോൾ നമുക്ക് തുണികളൊക്കെ അലക്കാനക്കെ ആയിട്ടും പിന്നെ ഉണങ്ങി കിട്ടാനക്കെയിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പം നമ്മൾ ഫാനിലക്കെ ഇട്ടായിരിക്കും ഉണക്കണത് അപ്പം നമ്മുടെ കറന്റ് കാശ് കൂടും പിന്നെ നമുക്ക് വീടിൻ്റെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല നിറച്ച് ചെളികളും ഒക്കെയായിരിക്കും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാനക്കെ തോന്നുന്നൊള്ളു പിന്നെ നമ്മളാസമയത്തക്കെയിരിക്കും കൊടേക്കെ മേടിക്കണ സമയം സ്കൂൾ കുട്ടികളക്കെ പോകണ സമയൊക്കെ അപ്പോഴാണല്ലോ പിന്നെ വേനൽക്കാലന്ന് പറയുമ്പോൾ ചൂടെടുത്ത് ഒട്ടും പറ്റില്ല നമുക്ക് ഫാനില്ലാണ്ടൊന്നും ഒട്ടും പറ്റില്ല പിന്നെ അപ്പം ആ സമയത്തക്കേയിരിക്കും കൂടുതൽ എ സികളക്കെ എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങണത് പിന്നെ മഞ്ഞ് കാലന്ന് വച്ചാൽ രാവിലേക്ക നമുക്ക് എണീക്കാൻ തന്നെ ഭയങ്കര മടിയായിരിക്കും തണുപ്പും പിന്നെ പുറത്തിറങ്ങാനും ഭയങ്കര മടിയക്കെയിരിക്കും ഫുൾ ടൈം പുതച്ച് മുടിയക്കെ കിടന്ന് ഉറങ്ങാനക്കെയിട്ടാരിക്കും നമുക്ക് തോന്നണത് പിന്നെ കാറ്റ്ന്നക്കെ പറയുമ്പം നമുക്ക് ഭയങ്കര സുഖമാണ് മരത്തണലിലക്കെ പോയിരുന്ന് ആസ്വദിക്കാനക്കെയിട്ട് നമുക്ക് ഭയങ്കര താൽപ്പര്യമായിരിക്കും